പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി നാല് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി നാല് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ആറ്